ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വരുമാനം തരുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും യൂട്യൂബില് ചാനൽ തുടങ്ങുന്നു അതിൽ വീഡ്യോസ് ഇടുന്നു അതിന് മില്യൻ വ്യൂസ് കിട്ടുന്നു അതുവഴി യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നു അവരുടെ ഒരു എന്താ പറയുക ഒരു ജോലിയാണ് ഇപ്പോൾ യൂട്യൂബില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ഒരുപാട് ജന തലമുറകൾ ഇപ്പോഴത്തെ തലമുറകളില് കാണുന്നത് പഠിച്ചില്ലെങ്കിലും യൂട്യൂബിൽ വഴി യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള ഒരു ഇതാണ് ചിന്താഗതിയിലാണ് ഇത് ഒത്തിരി പേരുണ്ട് ഇപ്പം നമ്മൾ പണ്ടൊന്നും അധികം യൂട്യൂബിലൊന്നും കാണാറില്ല ഇങ്ങനെ യൂട്യൂബ് വഴി ഇങ്ങനെ ആൾക്കാറ് ജോലി ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് അങ്ങനെ വലിയ അറിവില്ല ഇപ്പം ഈ അടുത്ത അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബില് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കേൾക്കുകയാണ് അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ അതും ഒരു ഇത് ഒരു കഴിവ് തന്നെയാണ് ഇങ്ങനെ എല്ലാം സംസാരിക്കുക തൻ്റെ ജീവിതത്തില് നടക്കുന്ന ഒരോരോ കാര്യങ്ങള് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുകയൊന്നുമില്ല എല്ലാരും ചിലവർക്കൊക്കെ മടിയുണ്ടാകും അങ്ങനെ മടിയൊന്നും കാണിക്കാതെ ഇവര് ചെയ്യുന്നത് അതും ആ ഒരു കാര്യം തന്നെ അവർക്ക് അതിനുള്ള അങ്ങനെ മടിയില്ലാതെ ചെയ്യുന്നതുകൊണ്ടുള്ള പൈസ തന്നെയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അത് ഒരുപാട് പേര് കാണുന്നു അങ്ങനെ അവർക്ക് പൈസ കിട്ടുന്നു അതൊക്കെയാണ് അപ്പോൾ അതും ഒരു തൊഴിലായിട്ട് ഈ അടുത്ത അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ഇതിപ്പോൾ കണ്ടിട്ട് ഒരുപാട് ഒരുപാട് പേര് ഈ യൂട്യൂബ് ചാനല് എടുത്തിട്ട് വരുന്നുണ്ട് യൂട്യൂബ് ചാനല് വഴി ആൾക്കാർ അറിയുന്നു തിരിച്ചറിയുന്നൂ എന്നുള്ളതുകൊണ്ട്തന്നെ ആൾക്കാർ അറിയാനും തിരിച്ചറിയാനും പിന്നെ സിനിമയിലേക്ക് വരുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബ് എടുത്തിട്ട് അതില് ചാനൽ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഇടുന്നു അങ്ങനെയുള്ള ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ അടുത്തായി യൂട്യൂബിൽ ആയിരിക്കും ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇപ്പോൾ പഠിക്കലെല്ലാം ഭയങ്കര കുറവാണ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ യൂട്യൂബ് വഴി ജോലി കിട്ടുന്നുണ്ട് യൂട്യൂബ് വഴി പൈസ വരുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ എന്നെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് എന്ന് വച്ചാൽ എനിക്ക് അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് വീഡിയോ ആയിട്ട് എടുത്ത് ഇടുകയൊന്നുമില്ല അത് അങ്ങനെ എല്ലാർവക്കും പറ്റുകയൊന്നുമില്ല അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക അങ്ങനെ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെ ഒരു വീഡിയോ എടുത്തിടാനും പറ്റുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഒരു കഴിവ് തന്നെയാണ് പിന്നെ നമ്മള് തള്ളിക്കളയാനോ തള്ളിപ്പറയാനോ നമുക്ക് പറ്റില്ല അപ്പോൾ യൂട്യൂബില് കണ്ടന്റ് ക്രിയേറ്റീവ്സിനെപ്പറ്റി പറയുകയാണെങ്കില് അവര് സിനിമയിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വച്ചിട്ടായിരിക്കും അവര് ഇങ്ങനെ ഒരു കണ്ടന്റുകള് വീഡിയോസ് എടുത്തിട്ട് ഇടുന്നത് അപ്പോൾ അതിങ്ങനെ ആൾക്കാരിലേക്ക് എത്തുന്നു ജനങ്ങളിലേക്ക് എത്തുന്നു അങ്ങനെ എത്തി എത്തി സിനിമ ലോകത്തേക്കും അവർക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് അത് വഴി അവർക്ക് അത് ചെയ്യുന്നതിലൂടെ യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്നു ഇപ്പം അങ്ങന ഹാസ്യ നടന്മാരാണെങ്കിലും സിനിമയിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് സിനിമയിലേക്ക് എത്തുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള ജോലികളാണ് ഈ പറഞ്ഞ ഈ യൂട്യൂബറും കണ്ടന്റ് ക്രീയേറ്ററും ഹാസ്യ നടനാണെങ്കിലും എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുകൾ ഉണ്ട് പഠിക്കാൻ കഴിവുള്ളവര് പഠിക്കും അങ്ങനെ ജോലി വാങ്ങും അങ്ങനെ കഴിവ് ഉള്ളവരാണെങ്കിലും യൂട്യൂബ് ഒക്കെ എടുക്കുന്നുണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലൈഫില് എന്താ പറയുക ഒരു ഭാഗമായി മാറി ഇപ്പം എല്ലാവരും യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോരോ വീഡിയോകൾ ഇപ്പം ഇതേപോലെ ഈ ജീവിതത്തില് നടക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് യൂട്യൂബിൽ ഇടുന്നത് കാണാനും ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പറ്റില്ല ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നൊരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്നെക്കൊണ്ട് എന്തായാലും പറ്റില്ല അങ്ങനെ എല്ലാവരെക്കൊണ്ടും പറ്റത്തൊന്നുമില്ലല്ലോ ഓരോരുത്തർക്ക് പറ്റുന്ന ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവര് ചെയ്യുന്നത് അപ്പോൾ മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു വീഡിയോ എടുത്ത് ഇടുക എന്നെല്ലാം പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്

യൂട്യൂബ് ആണെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അത് മതിയല്ലോ അപ്പോൾ എല്ലാവരും യൂട്യൂബിലേക്ക് പോവുക എന്ന് പറയുന്നതും വലിയ കാര്യമല്ല പക്ഷേ അത്യാവശ്യം ഇതും വേണം എന്നുള്ളത് പോലെ അതായത് വേറെ ജോലിയും ഉണ്ട് എന്നാൽ യൂട്യൂബും ചെയ്യുന്നുണ്ട് അതൊരു ഒരു സന്തോഷത്തിന് ചെയ്യുന്ന അങ്ങനെയുള്ള രീതിയിൽ ഒക്കെയാണെങ്കിലും നല്ലതാണ് പിന്നെ അതേപോലെ നല്ലത് തന്നെയാണ് യൂട്യൂബ് നല്ലത് തന്നെയാണ് നമുക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്